ഡെൽന ഡെൽന പഠിച്ച കലാലയത്തെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് കോട്ടയത്താണ് കോട്ടയത്ത് സി എം എസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അത് ഒരു എയ്ഡഡ് കോളേജാണ് അതിപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ അഡ്മിഷനെടുത്ത വർഷമാണാ കോളേജ് ഓട്ടോണോമസ്സ് ആക്കിയത് ഓട്ടോണോമസ്സാക്കിയതു കൊണ്ടു തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു കോളേജ് ഓട്ടോണോമസ്സാക്കിയപ്പോൾ പരീക്ഷകളും സിലബസ്സും ഒക്കെ കോളേജിനു തന്നെ തീരുമാനിക്കാമെന്നുള്ള ഒരവസ്ഥയിലായിരുന്നു റിസൾട്ടുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ സമയത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം കോളേജിനുണ്ടായിരുന്നില്ല അതുകൊണ്ടു തന്നെ ഞങ്ങളുടെ പരീക്ഷകളെല്ലാം കൃത്യ സമയത്തു നടക്കുകയും റിസൾട്ടുകളെല്ലാം കൃത്യ സമയത്ത് പുറത്തു വരികയുമൊക്കെ ചെയ്തിരുന്നു അത് അത് ഞങ്ങൾക്കു വളരെയധികം പ്രയോജനകരമായിരുന്നു പിന്നെ സി എം എസ് കോളേജെന്നു പറയുന്നതു വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു ക്യാമ്പസ്സായിരുന്നു അപ്പോൾ ഞങ്ങൾ എനിക്കു വളരെ ഇഷ്ടമാണ് ഞാൻ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജ്വേഷനും ഞാൻ പഠിച്ചതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഡിഗ്രി പഠിച്ച ഗ്രാജ്വേഷൻ പഠിച്ച എൻ്റെ കോളേജെന്നു പറയുന്നത് എനിക്കിപ്പോഴും ഏറ്റവും പ്രിയ്യപ്പെട്ടതാണ് ഞാനവിടെ ചിലവഴിച്ച എൻ്റെ മൂന്നു വർഷങ്ങളെന്നു പറയുന്നത് ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ്ണ നിമിഷങ്ങളായിട്ടു ഞാൻ കണക്കാക്കുന്ന വർഷങ്ങളാണ്